ഏറ്റവും കൂടുതല് ഇപ്പോഴുപയോഗിക്കുന്നത് ജിയോ സിമ്മുകളാണ് അതുപോലെ തന്നെ വഡാഫോൺ വഡാഫോണിപ്പം വി ഐ ആണെന്ന് തോന്നുന്നു ഐഡിയ ഇപ്പോള് ഉണ്ടോന്നറിയില്ല ഐഡിയായെക്കുറിച്ചിപ്പോള് കേള്ക്കുന്നില്ല പിന്നെ ബി എസ് എൻ എൽ ഞാൻ ബി എസ് എൻ എല്ലാണുപയോഗിക്കുന്നത് നേരത്തെ തൊട്ടുള്ള കണക്ഷനായതുകൊണ്ട് മാറ്റാതെ തന്നെ അങ്ങനെ പോകുന്നു ജിയോയിലേക്കാണ് ആൾക്കാര് ഒരു പരിധീക്കൂടുതല് ഇപ്പോള് നല്ല രീതിയില് പോകുന്നത് കാരണം ജിയോയിൽ നല്ല സർവ്വീസുകള് കിട്ടുന്നുണ്ടെന്നാണവര് പറയുന്നത് ബി എസ് എൻ എല്ലില് കുഴപ്പമില്ല പക്ഷേ എങ്കിലും ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ചിലപ്പോള് കോള് വിളിച്ചാല് കിട്ടത്തില്ല നാലും അഞ്ചും തവണെയൊക്കെ ട്രൈയ്താലേ കോളുകള് കിട്ടാത്തുള്ളു പിന്നെ നമ്മള് നെറ്റുപയോഗിക്കുന്നത് നമ്മള് കേരള വിഷൻ്റെ നെറ്റാണുപയോഗിക്കുന്നത് വൈഫൈ വഴി ഫോണില് ദിന്റെ ബി എസ് എൻ എല്ലിൻ്റെ തന്നെ കൂടുതല് സമയം വീട്ടിലുള്ളപ്പോള് വൈഫൈ വഴി യൂസ്യ്യുന്നുണ്ട് സ്പീഡുണ്ട് പൊതുവെ പറയുന്നത് ജിയോയുടെ സിമ്മാണ് കൂടുതല് സ്പീഡ് കിട്ടുന്ന അല്ലെങ്കിൽ വി ഐ ഇത് രണ്ടുമാണ് കൂടുതലും ആൾക്കാര് യൂസ്യ്യുന്നതും ഞങ്ങള്ക്കിങ്ങനെ പ്രാദേശികമായ നെറ്റവർക്കുകളെന്ന് പറഞ്ഞാല് കേബിൾ നെറ്റവർക്കേ ഉള്ളു അവരാണ് നമുക്ക് വൈഫൈ കണക്ഷൻ തരുന്നത് അത് നല്ല സ്പീഡാണ് മന്ത്ലി ഒരു നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് നാൽപ്പത് എം ബി സ്പീഡിലാണ് നൽ നാനൂറ്റി എഴുപത്തഞ്ചിന് നാൽപ്പതല്ല അറുവത് എം ബി സ്പീഡായിരുന്നു നാനൂറ്റി അമ്പതാകുമ്പോള് നാൽപ്പത് എം ബി സ്പീഡ് കിട്ടും അത് ഡെയിലി അതിനുള്ള ഒരു ഇതൊന്നുമില്ല ഇത്രയേ ഉപയോഗിക്കാവുള്ളൂ എന്നതൊന്നുമില്ല ഫോണിലെ നെറ്റിനാണങ്കില് ഡെയിലി ഉപയോഗിക്കാമെന്നുണ്ടല്ലോ ഇതാകുമ്പോള് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ജസ്റ്റ് അത് അറുപത് എം ബി സ്പീഡെന്നൊക്കെ പറഞ്ഞാല് നമ്മള് ടി വിയില് ലൈവ് കാണുന്ന ആ സ്പീഡിൽ കിട്ടുന്നുണ്ട് വേറെ അതിൻ്റെ കൂട്ടത്തിലൊരു ഫോണും താമസിയാതെ കിട്ടും അത് ഫുൾ വർക്കായിട്ടില്ല കിട്ടുമെന്നാണ് പറയുന്നത് അതുകൂടെയുണ്ടെങ്കില് നല്ലതായിരിക്കും പിന്നെ കൂടുതലുപയോഗിക്കുന്ന സിം ജിയോ സിം തന്നെയാണന്ന് ആണ് എൻ്റെയൊരു അഭിപ്രായം

പക്ഷേ എങ്കിലും പണ്ട് ബി എസ് എൻ എല്പയോഗിച്ചുകൊണ്ടിരുന്നവരിപ്പോഴും അത് തന്നെയാണുപയോഗിക്കുന്നത് ഞാനും അങ്ങനെ തന്നെ ബി എസ് എന്നെല്ലുപയോഗിക്കുന്നു വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ അനാവശ്യമായിട്ടതിനകത്തൊന്നും ചാർജുകളൊന്നും കട്ട്യ്യുന്ന ഏർപ്പാടുകളൊന്നുമില്ല ബാക്കി ഈ സ്വകാര്യ കമ്പനികൾ ഈ പറഞ്ഞ ജിയോടെ ആയാലും ഐഡിയേടെ ആയാലും വി ഐടെയായാലും ഏതൊക്കെ ആണേലും അതീന്നൊക്കെ എപ്പോഴും അതിനും ഇതിനൊക്കെ ആയിട്ട് പൈസയൊക്കെ കട്ടാകുന്നുണ്ടെന്നിങ്ങനെ പറഞ്ഞ് കേള്ക്കുന്നുണ്ട് പക്ഷേ ഇതിനങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കുഴപ്പവുമില്ലാത്ത രീതിയില് മുന്നോട്ട് പോകുന്നു അങ്ങനെ തന്നെ ആണെന്നും വിചാരിക്കുകയും ചെയ്യുന്നു